മലയാള ഭാഷ ഇന്ത്യയുടെ ഔദ്യാഗിക ഭാഷ ഹിന്ദിയുമായിട്ട് തരംതിരിച്ചു വിടാൻ പറ്റില്ലയെന്ന് എനിക്ക് തോന്നുന്നത് മലയാളം ആണ് ഏറ്റവും നല്ലൊരു ഭാഷയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതായത് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പം മുതൽ മലയാള ഭാഷയാണല്ലോ അമ്മ ആച്ഛൻ അങ്ങനെ വാക്കുകളിലേക്ക് മാറുന്ന മലയാളം തന്നെയാണല്ലോ അപ്പോൾ ആ കുട്ടിക്ക് കുട്ടിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇപ്പം ഹിന്ദിയും ഇംഗ്ലീഷും ആസ്സാമും അങ്ങനെയുള്ള ഭാഷകളെല്ലാം അറിയാമെങ്കിൽപ്പോലും മലയാളം അറിഞ്ഞിരിക്കണം മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ആവശ്യമാണ് അപ്പം എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് മലയാള ഭാഷ ഇല്ലാതെ ജീവിക്കാനായി സാധിക്കില്ല ഇപ്പം മലയാളം എല്ലാർക്കും താല്പര്യക്കുറവാണ് ഹിന്ദി ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും മറ്റു ഭാഷകളൊക്കെ നല്ലതാണ് തമിഴും ഒക്കെ പക്ഷേ ഏതൊരു രാജ്യത്ത് പോയാലും നമ്മുടെ നമ്മുടെ അമ്മയെപ്പോലെ നമ്മൾ മലയാള ഭാഷയെ സ്നേഹിക്കണം മലയാള മലയാളം ആണ് നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു വേറെ വേറെ ഏതൊരു ദേശത്തുപോയി ജീവിച്ചാൽപ്പോലും ഒരു കുട്ടി കുട്ടിയുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന അവസ്ഥതന്നെ ഈ കേട്ടു പഠിച്ചിരിക്കുന്ന മലയാളമാണ് അപ്പം ജന്മസിദ്ധമായിട്ട് അവന് മലയാളം സംസാരിക്കാനുള്ള കഴിവുകളുണ്ട് മലയാളം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക്

എല്ലാവർക്കും ഇംഗ്ലീഷ് മതിയെന്നൊരു സാഹചര്യത്തിലേക്ക് മാറി എങ്കിൽപ്പോലും മലയാളത്തിലെ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല മലയാളം നമ്മുടെ പിന്നെ മാതൃഭാഷയാണ് മാതൃഭാഷയെ നമ്മൾ അമ്മയെപ്പോലെ സ്നേഹിക്കണം അമ്മയെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാറില്ലല്ലോ എന്തൊക്കെ സാഹചര്യങ്ങളും മെച്ചപ്പെട്ട ആ ജീവിത്തിൽ എന്തൊക്കെ ഉയർച്ച പിന്നെ ഉയർച്ചയുണ്ടായാൽപ്പോലും നമ്മുടെ അമ്മയെ ധിക്കരിച്ച് പറയാറില്ല എന്നു പറഞ്ഞപോലെ തന്നെ നമ്മൾ ഏതെല്ലാം മേഖല എത്തി ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും ഒക്കെ സംസാരിച്ചാൽപ്പോലും ഈ മലയാളം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം നമ്മുടെ കൂടപ്പിറപ്പായി തന്നെ കാണണം എന്നാണ് എനിക്ക്